ഓ കോഴിക്കോട് ജില്ലയിലെ പ്രധാന വ്യവസായ കേന്ദ്രങ്ങള് ഏതൊക്കെയാന്ന് വച്ച് കഴിഞ്ഞാൽ ഇഷ്ട്ടം പോലെയുണ്ട് കാരണം എന്താന്ന് വച്ച് കഴിഞ്ഞാല് കോഴിക്കോട് ജില്ലാന്ന് പറഞ്ഞ് കഴിഞ്ഞാല് വലിയൊരു സിറ്റിയാണ് അപ്പം നമുക്കവിടെ ഇഷ്ട്ടം പോലെ വ്യവസായതരം വ്യവ വ്യവസായങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ പലതരം വ്യവസായങ്ങളുണ്ട് ഇപ്പം കൃഷീയുണ്ട് കൃഷീ എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നമ്മുടെ എന്താ പറയുക സംസ്ഥാനത്ത് തന്നെ ഇഷ്ട്ടം പോലെ സ്ഥലത്ത് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം നമുക്ക് കോഴിക്കോട് ജില്ലയിലും കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇഷട്ടംപോലെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവര് കൂടുതലായിട്ടും ഈ ആദിവാസി വിഭാഗത്തിൽ പെട്ടവരായിരിക്കും കൂടുതലായിട്ടും കൃഷിയും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്നത് ഇല്ലങ്കില് ഈ പണ്ടത്തെ ജന്മിമാരൊക്കെ ചെയ്യുന്ന പോലെ ഓരോരുത്തരും ഇങ്ങനെ ചെയ്യുന്നതൊക്കെയുണ്ടാകും പിന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് പല തരം ഉല്പാദനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഉല്പാദനം എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നമക്കിപ്പം വാഴ കൃഷി കാപ്പി കുരുമുളക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും നമ്മുടെ ജില്ലയിൽ ചെയ്യുന്നുണ്ടാകും പിന്നേന്ന് പറഞ്ഞ് കഴിഞ്ഞാല് പല തരം വ്യവസായ ശാലകള് കാര്യങ്ങളൊക്കെയുണ്ട് ഇപ്പം തുണിത്തരങ്ങള് അങ്ങനത്തെ കാര്യങ്ങളക്കെ കൂടുതലായിട്ടും ഉണ്ടാക്കുന്നതും നമ്മുടെ കോഴിക്കോടിലെ കോഴിക്കോട് തന്നെയാണ് അത് വി വിപണനം കൂടുതലായിട്ടും നടക്കുന്നതും കോഴിക്കോട് തന്നെയാണ് അപ്പം അവിടെ നടക്കുന്നുണ്ട് അപ്പോ ഇഷ്ട്ടം പോലെ സ്ഥാപനങ്ങളുണ്ട് പിന്നെ ഇൻഡസ്ട്രിയിൽ മേഖലയിൽ തന്നെ ഇഷ്ട്ടം പോലെ വ്യവസായ ശാലകള് ഇഷ്ട്ടം പോലെ നമുക്ക് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്താന്ന് വച്ച് കഴിഞ്ഞാല് നമുക്ക് വ്യവസായം ഇല്ലാത്ത സ്ഥലങ്ങളായിട്ടിപ്പം ഇന്ത്യയിൽ തന്നെ കുറവാണ് അപ്പോൾ ഓരോ കാര്യങ്ങള് ഇപ്പം നമ്മളൊരു വീട് ഉണ്ടാക്കണമെങ്കിൽ പോലും ഇൻഡസ്ട്രിയലായിട്ടും നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യണ്ടതാണ് അപ്പം അതൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ട്